ഹലോ ക്യാബ് ഏജൻസിയാണോ ആ അപ്പം നമ്മക്കൊരു വണ്ടി റെന്റിന് വേണമായിരുന്നു ആ അല്ല ഡ്രൈവർ വേണ്ട ഡ്രൈവർ വേണ്ട നമ്മുടെ അടുത്ത് ഡ്രൈവറുണ്ട് നമുക്ക് ഫാമിലിയായിട്ടൊന്ന് ട്രിപ്പ് പോകാൻ വേണ്ടി അപ്പോൾ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല അപ്പം ആ അതെ അതെ അപ്പോൾ റെന്റിന് എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആയിരുന്നേ അത്രയെ വരൂ അല്ലെ ആ ഒരു കാർ മതി ഒരു ഫോർ സീറ്റർ കാർ മതി ഞങ്ങൾ സുഹൃത്തുക്കളായിട്ടൊരു അഞ്ച് പേര് ഇതായിട്ട് പോവുന്നയാണ് അപ്പം രണ്ട് പേര് ഫ്രണ്ടിലും ബാക്കിൽ അങ്ങനെയാണേ മൂന്ന് പേർക്ക് ഇരിക്കാമല്ലോ ഒരു കിലോമീറ്ററിന് എത്രയാണ് റേറ്റ് വരുന്നത് ഒരു കിലോമീറ്ററിന് ആണല്ലേ ആഹ ആ നമുക്കൊരു ഫൈവ് ഡേയ്സ് ട്രിപ്പാണ് ആ ഫൈവ് ഡേയ്സ് നമ്മൾ ഓൾ കേരള ട്രിപ്പിനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫൈവ് ഡേയ്സിൽ എവിടെയെല്ലാം കവർ ചെയ്യാൻ പറ്റുമോ അവിടെയെക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആ എന്നാൽ അതൊന്ന് റെഡി ആക്കി വെക്കണം കേട്ടോ നമ്മൾ പതിനഞ്ചാം തീയതിയാണെ ഓക്കെ